നമ്മുടെ ഗതാഗതം മെച്ചപ്പെടുത്താൻ വേണ്ടീട്ട് നമുക്ക് കൂടുതൽ ക്യാമറകൾ നിരീക്ഷണത്തിൽ വെക്കാം പിന്നെ എല്ലാ എല്ലാ ജംഗ്ഷനുകളിൽ എല്ലാം സിഗ്നലുകൾ നിർബന്ധമാകണം എന്നാലേ നമുക്ക് ഗതാഗത നിയന്ത്രണം ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ വെച്ചാൽ അത്യാവശ്യ സാഹചര്യങ്ങൾ പൊതു വാഹനങ്ങൾ ഉപയോഗിക്കുക കൂടുതലും നമ്മൾ അന്തരീക്ഷം മലിനമാകാതെ സൂക്ഷിക്കുക പിന്നെ ഇപ്പോൾ ഒറ്റക്ക് ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കില് നമ്മള് കൂടുതലും കാറുകൾ ഉപയോഗിക്കാതെ ബസുകളോ ട്രെയിനുകളോ അങ്ങനെ ഉപയോഗിക്കുക